ഹലോ ഡാൻസ് ടീച്ചറാണ് ആരായിരുന്നു പേരെന്തായിരുന്നു പേരെന്തായിരുന്നു താങ്കളുടെ ആ ജിനി നമുക്ക് പ്രധാനമായിട്ടും താങ്കൾ ഡാൻസ് പഠിച്ചയാളാണോ ക്ലാസിക്കൽ ക്ലാസിക്കൽ ഡാൻസിനോട് വല്ല താല്പര്യവുമുള്ളയാളാണോ അതോ ഡാൻസ് പഠിക്കുന്നതാണോ ക്ലാസിക്കൽ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കില് നമുക്ക് ഭരതനാട്ട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ്സിക്കലായിട്ടുമൊക്കെ അപ്പം അതാണോ ഫോക്ക് ഡാൻസുകളോടാണോ താല്പര്യം മത്സരങ്ങൾക്കൊക്കെയാണെങ്കിൽ കൂടുതലും നമ്മള് ക്ലാസിക്കൽ ഡാൻസുകളാണ് ഇറക്കാറ് നാടോടിനൃത്തം അങ്ങനെ ഇനി ഗ്രൂപ്പ് ഡാൻസുകളോടാണ് താല്പര്യമെങ്കില് തിരുവാതിര മാർഗ്ഗംകളി അങ്ങനെ അ ഒപ്പന അങ്ങനെയുള്ള ഗ്രൂപ്പ് ഡാൻസുകളാണ് അതിൻ്റെ കോസ്റ്റ്യൂം ആ ക്ലാസിക്കൽ ഡാൻസ് ഡ്രസ്സ് നമ്മളിങ്ങനെ കോസ്റ്റ്യൂം ആദ്യം നമ്മളതിൻ്റെ ആദ്യപടികള് സ്റ്റെപ്പുകളെല്ലാം സ്വായത്തമാക്കിയതിനുശേഷമാണ് നമ്മൾ ഡാൻസിലേക്ക് നമ്മള് കടക്കുന്നത് അപ്പോള് ഫീസെന്നു പറയുന്നത് ഒരു ഒരു ഡ്യൂറേഷൻ വണ് ഇയർ ടു ഇയർ അങ്ങനെയാണ് കോഴ്സുകളൊക്കെ കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്ത് അരങ്ങേറ്റം നടത്തുന്നതിന് നമുക്കൊരു ഫിക്സഡ് ചാർജ്ജുണ്ട് അതാണ് അപ്പോള് ആ അത് ഒരമ്പത് മുതല് അമ്പതിനായിരം മുതല് ഒരു രൂപ വരെ അടുത്തുവരുന്നുണ്ട് പിന്നെ വീക്കെൻണ്ടില് ക്ലാസ്സുണ്ട് ഡേ ക്ലാസ്സുണ്ട് മന്തിലി ക്ലാസ്സുണ്ട് താങ്കൾക്ക് ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് താല്പര്യം താങ്കളുടെ ആ റേറ്റ് എല്ലാം ഏകദേശം സെയിം അല്ല ആ ഡേ ക്ലാസ്സിനും വ്യത്യാസമുണ്ട് മന്തിലി ആകുമ്പോള് നാലു ക്ലാസ്സേ വരികയുള്ളൂ സെക്കൻഡ് സാറ്റർഡേകളില് സാറ്റർഡേയ്കളിലെ ക്ലാസ്സാണ് കൂടുതലും നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മള് ആൾക്കാരുടെ സൗകര്യമനുസരിച്ച് കുട്ടികളുടെ സൗകര്യമനുസരിച്ച് നമ്മളതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോള് നമുക്കിവിടെ അരങ്ങേറ്റത്തിന് സമയമുണ്ട് ഒരു ഒരു സെക്ഷനിൽ വരുന്ന കുട്ടികൾ എല്ലാംകൂടെ ഒന്നിച്ചൊരു സമയം അരങ്ങേറ്റം നടത്താറുണ്ട് കുട്ടിക്ക് താല്പര്യമാണെങ്കില് ആ സമയത്ത് ഒന്നിച്ചെല്ലാവരുടെയും കൂടെ അരങ്ങേറ്റം നടത്താം അല്ലെങ്കില് നമുക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും പ്രോഗ്രാം നടത്താം അതിനൊക്കെ ചാർജ്സ് വ്യത്യാസമായിട്ടിരിക്കും ആ അല്ലെങ്കില് പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഐറ്റംസില് പങ്കെടുക്കാവുന്നതാണ് ഗ്രൂപ്പ് ഐറ്റംസ് ആ ഇഷ്ടം ആ മന്ത്ലിയുള്ള ക്ലാസ് മതി ആ അപ്പോള് മുദ്രകളൊക്കെ താങ്കൾക്ക് പരിചയമുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കില് താങ്കൾ അടുത്തയാഴ്ച തൊട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തുവന്നാൽ ഡീറ്റൈലുകളൊക്കെ അവിടെ വന്ന് പറഞ്ഞുതരാം കേട്ടോ ഓക്കേ